ഹലോ നീതു മിസ്സല്ലേ ഞാൻ വൈഗേടെ പേരൻറ്റായിരുന്നു ആ അവൾക്ക് ഭയങ്കര പനിയാന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമായി അവൾ ക്ലാസ്സിൽ വരാമ്പറ്റാണ്ട് ആ അഡ്മിറ്റായിരുന്നു ആള് എന്നിട്ടിപ്പം ഇന്നലെ അവളെ ഡിസ്ചാർജ്ജാക്കിയുള്ളു ഓക്കേ ആ അതെ അതെ അപ്പോൾ ഇനീം വൺ വീക്ക് റെസ്റ്റാണ് ഡോക്ടറ് പറഞ്ഞേക്കണത് അപ്പോൾ കുറച്ച് നാളുകൂടിയിനി ആളുണ്ടാവില്ല്യാ

ആ അതെ അതെ അത് ക്ലൈമറ്റിൻ്റെ ആണെന്നേ അപ്പോൾ നോട്ട്സ്സക്കെയെങ്ങനെയാണ് നോട്സപ്പോൾ ഓക്കെ ആ എന്നാൽ നോട്ട്ക്കെസ്സ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഞാനവളെ അങ്ങനെയെഴുതിച്ചോളാം ആ അത് ഞാൻ പറഞ്ഞ് കൊടുത്തോളം കുഴപ്പമില്ല

ഓക്കെ താങ്ക് യൂ

ഓക്കെ ആ ആ ഓ ഓ ഓ ആൾക്കൊട്ടും അനങ്ങാമ്പറ്റണില്ല ഫുൾ ടൈമ് കിടപ്പൊക്കെ തന്നെയാണ് ആ ആ ആ

ഓക്കെയിട്ട് അവൾ ദേ ഇവിടെയുണ്ട് കിടക്കണുണ്ടവൾ ആ ശരി ആ